തൊണ്ടവേദന ഭേദമാകാന് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ പ്രചാരത്തിലുള്ള നാട്ടുവൈദ്യങ്ങൾ എന്നു വെച്ചാൽ ഒന്ന് ആവി പിടിക്കുക അതാത് എന്തെങ്കിലും ഔഷധ ഇലങ്ങള് ഇലകളിട്ട് ആവി പിടിക്കുക തുളസി പനിക്കൂർക്കയില തൊട്ടാവാടി തുടങ്ങിയവയിട്ട് ആവി പിടിക്കുക രണ്ടാമത് എന്ന് പറയുന്നത് ഉപ്പുവെള്ളം ദിവസത്തിൽ മൂന്നു നേരം വീതം ഉപ്പുവെള്ളം അതായത് ഇളം ചൂടോടെ ഉപ്പിട്ട വെള്ളം വെള്ളം ചൂടാക്കി വായിൽ കൊള്ളിക്കുന്നത് തൊണ്ടവേദനയ്ക്കു ശമനം ആകും പിന്നെ ചുവന്നുള്ളി കൽക്കണ്ടം എന്നിവയൊ ഇത് തിന്നുന്നതും തൊണ്ടവേദനയ്ക്കും കഫകെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇതൊരു ഫേദമാകുന്ന കാര്യമാണ് പിന്നെ ഔഷധ ഇലകൾ വെച്ച് ലേഹ്യങ്ങൾ ഉണ്ടാക്കി കഴിക്കാം പൊടികൾ കാച്ചിയ എണ്ണ തുടങ്ങിയവ വെക്കുന്നതു മൂലം തൊണ്ടവേദന ഫേദമാകുവാൻ ഉള്ള വഴികൾ ആണിത്